നമ്മുടെ വീട്ടു മുറ്റത്തേക്കല്ലെങ്കിൽ പൂന്തോട്ടത്തിലേക്ക് പക്ഷികളെ ആകർഷിക്കാൻ ആദ്യമായിട്ട് അവർക്ക് ഭയം കൂടാതെ അങ്ങോട്ട് വരാനൊരു സംവിധാനമുണ്ടാകണം അതാണ് പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ അവർക്ക് പാർക്കാനുള്ളൊരു സംവിധാനം നമ്മൾ വൃക്ഷങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ച് അവർക്ക് വന്ന് യഥേഷ്ടം ഇരിക്കാനും തണലിൻ്റെ തണൽ ഉള്ളോരനുഭവങ്ങൾക്കുണ്ടായാൽ നമ്മുടെ ഉച്ചയാകുമ്പോൾ വീട്ട്മുറ്റത്തോട്ടും നമ്മളെ പൂന്തോട്ടത്തിലെ പക്ഷികൾ പരിപാടിയായി തീരും അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ടും ഈ പൂക്കൾ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ വല്ല തേൻ കുടിക്കാനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പക്ഷികളെല്ലാം വരാനായിട്ട് വിളയായി തീരും അത് ആണ് എനിക്കതിനുള്ളൊരു നിർദ്ദേശം അത് മാത്രാണുള്ളത് പിന്നെ തീർച്ചയായിട്ടും പക്ഷികൾക്ക് വെള്ളവും ധാന്യങ്ങളൊക്കെ നൽകുന്ന ഓരോ കാര്യങ്ങളുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഒന്നാമത് ഒരു മാസം നമുക്ക് നമ്മുടെ പത്തനംതിട്ട ജില്ലേലക്കെ നല്ല ചൂടായിരുന്നു ഈ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ഈ പട്ടികൾക്ക് കുടിക്കാനും പ്രത്യേകമായ അതുപോലെ പക്ഷികൾക്ക് കാക്ക അതുപോലെ ചെറിയ ചെറിയ പക്ഷികൾക്ക് കുടിക്കാനും നമ്മുടെ തോട്ടത്തിൽ വിവിധ ഭാഗങ്ങളിൽ മുറ്റത്തിൽ വിവിധ ഭാഗങ്ങളിലൊക്കെ വെള്ളമൊഴിച്ച് വെക്കാറുണ്ട് അതുപോലെ തന്നെ ധാന്യങ്ങൾ ചെറിയ പക്ഷികൾക്കക്കെ കൊത്തി തിന്നത്തക്ക രീതികൾ സംവിധാനങ്ങളൊക്കെ ചെയ്യാറുണ്ട് കാരണം വെച്ചാൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് വയലുകളൊക്കെ നികത്തി ഈ ആറ് തോടുകളൊന്നുമല്ല പണ്ട് കാലങ്ങളിലൊക്കെ ഇഷ്ടം പോലെ വെള്ളത്തിൻ്റെ സ്രോതസ്സിഷ്ടം പോലെ ഉണ്ടായിരുന്നു വയലുകളിലൊക്കെ വയലുകളിൽ ചെന്നാലും തോടുകളിൽ വല്ല ആറുകളിലക്കെ വെള്ളമുണ്ടായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ എല്ലാവരും വയലൊക്കെ നികത്തി തോടില്ലാ ആറില്ല പിന്നെ പിന്നെ കിണർ പോലും വറ്റി കൊണ്ടിരിക്കുന്നൊരു കാലമാണ് അപ്പം തീർച്ചയായിട്ടും ഈ പക്ഷികൾക്ക് ഈഴ ഈ ഇതിനുള്ള നാൽക്കാലികൾ ജീവികൾക്കൊക്കെ വെള്ളത്തിൻ്റെ ഒക്കെ അത്യാവശ്യം ഉണ്ട് അപ്പമവർക്ക് പറയാൻ അറിയത്തില്ല അപ്പോൾ നമ്മളറിഞ്ഞ് അത് ചെയ്യാ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് എന്നാണ് എനിക്കിപ്പോൾ ഈ സമയത്ത് പറയാനുള്ളത്